ആരുടെ വീട്ടിലെ പട്ടീ പട്ടീന്റെ നഖമെല്ലാം പോയേക്കുകയാണ് നഖമിങ്ങനെ വിട്ട് ദാ ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ പട്ടീന്റെ രോമം കൊഴിഞ്ഞിട്ടുണ്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഏ

ആ ആ രോഗമുണ്ട് പിന്നെ പട്ടി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള എല്ലാം എന്താണു ചെയ്യേണ്ടത് അല്ല എത്ര മണിക്കാണു കൊണ്ടുവരേണ്ടത് ആ ആ അത് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല കുളിപ്പിക്കുന്നുണ്ട് ഇത് ഇപ്പോള്

ഓ ആ കുളിപ്പിക്കേണ്ടിവരും ചിലപ്പോള് ആ ആയിക്കൊട്ടെ ഞാന് കൊണ്ടുവരാം ആ ആ ആ ആ ആയിക്കോട്ടായിക്കോട്ടെ അപ്പോള് ആ കഷ്ടിച്ചൊരു വയസ്സുണ്ടാവും ഉം ചെറിയ പട്ടിയാണ്

ഉം അങ്ങനെയെല്ലാമാണു സംഭവം നാളെ കൊണ്ടുവരാം ആ ആയിക്കോട്ടായിക്കോട്ടെ ആ ആ ആ ഹാ